അയ്യോ ഞാനെന്റെ പേഴ്സ്സ് എടുക്കാൻ മറന്ന് പോയി അയ്യോ അപ്പം ചേട്ടന് ഗൂഗിൾ പേയോ ഫോൺ പേയോ അങ്ങനെന്തേലുവൊണ്ടൊ

ഇപ്പം ഞാനെന്റെ ബാഗിന്റെ അകത്താണ് പേർസ് ഇരുന്നത് പേഴ്സെടുക്കാൻ മറന്ന് പോയി അപ്പം ഞാൻ അത് എടുത്തെന്നാണ് ഓർത്തത് ഞാന് വണ്ടിയെച്ചാടി കയറിയത് വണ്ടി വന്നപ്പത്തേക്കും അപ്പം ഞാൻ എന്നാൽ ചേട്ടന്റെ ഗൂഗിൾ പേയിലേക്ക് പൈസ ഇടാം അപ്പം എത്ര രൂപയാണ് നൂറ്റമ്പത് രൂപയല്ലെ നൂറ്റമ്പത് രൂപ ഇപ്പം തന്നെ ഞാനിട്ടേക്കാം ചേട്ടാ പൈസ ഇട്ടിട്ടുണ്ട് ചേട്ടനൊന്ന് നോക്കിക്കെ പൈസ കയറിയല്ലൊ അല്ലേ ആ ചേട്ടന് പോകുമ്പം തന്നെ എടുത്തോ കേട്ടോ അപ്പം ഓക്കെ താങ്ക്യൂ എന്നെ സ്ഥലത്ത് കൊണ്ടെത്തിച്ചതിനൊക്കെ നന്ദി ഉണ്ട് പിന്നെ ചേട്ടാ സോറി കേട്ടോ കാരണം പേഴ്സെടുക്കാതെ വന്നത് കൊണ്ടാണ് ചേട്ടന് ജി പി ചെയ്യേണ്ടത് വന്നത്